ഇപ്പം ഇന്ത്യ ഫാഷനെന്ന് പറയുമ്പോൾ പഴയ വസ്ത്രരീതിയും പുതിയ വസ്ത്രരീതിയും തമ്മിൽ രീതിയും തമ്മിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ ഇപ്പം പഴയ സമയത്ത് എന്ന് പറയുമ്പോൾ സാരി ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രങ്ങളായിരുന്നു പഴയ കാലത്ത് സ്ത്രീകൾ കാലത്തൊക്കെ ധരിച്ചിരുന്നത് ഇന്നിപ്പം നോക്കുമ്പോൾ ജീൻസ് ചുരിദാറ് ക്രോപ്പ് ടോപ്പ് ലഹങ്ക അങ്ങനെ ചെറിയ മാറി കുറേ മാറി അന്ന് മൊത്തം ബോഡി കവറ് ചെയ്യുന്ന ആണെങ്കിൽ ഇന്നിപ്പം അങ്ങനെയല്ല ഇന്നിപ്പോൾ ബോഡി കവറ് ചെയ്യാറില്ല ഒരു വലിയ രീതി കുട്ടികൾക്കായാലും വലിയവർക്കായാലും മുതിർന്നവരിലായാലും പഴയ വസ്ത്രരീതിയും പുതിയ വസ്ത്രരീതി രീതിയും തമ്മിൽ നല്ല ഡിഫറൻസ് വന്നിട്ടിണ്ട് നമ്മളെ നമുക്കറിയാം നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പുറത്തേക്കിറങ്ങുമ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ പഴയ ഒരു ഇത് വെച്ച് കംമ്പെയർ ചെയ്യുമ്പം ഇപ്പത്തേതായിട്ട് നല്ല മാറ്റം ഉണ്ട് ഓരോ പുതിയ മോഡലുകൾ ഫാഷനുകൾ അത് ഇത് വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പം നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ നല്ല രീതിക്കുള്ള വ്യത്യാസം ഉണ്ട് കൾച്ചർപരമായുള്ള ഒരു ഇതൊന്നും അല്ല നല്ല രീതിക്ക് വ്യത്യാസവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ പൊതുവേ പുത്തൻതലമുറയാണ് പുതിയ തലമുറയാണ് പഴയതിനോട് ആർക്കും വലിയ താല്പര്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത് വെച്ച് നോക്കുമ്പം ഓരോരുത്തർക്കും മാറ്റങ്ങൾ അവരുടെതായ ഇഷ്ടരീതിയിൽ ഇതാക്കുന്നു ഇന്നത്തെ നല്ല മാറ്റം വന്നതായിട്ട് ഞാൻ പറയുന്നുണ്ട് പഴയ വസ്ത്രരീതിയും പുതിയ വസ്ത്രരീതിയും തമ്മിൽ ഉണ്ട് പഴയതിനെക്കാട്ടി ഒരുപാട് ഒരുപാട് ഒരുപാട് മാറിയിട്ടാണ് ഇപ്പത്തെ ഒരു വസ്ത്രരീതിയും കാര്യങ്ങളും ഒക്കെ പോകുന്നത്